ആരോഗ്യമുള്ള വരായിരിക്കുക നൃത്തം എങ്ങനെയാണ് ആളുകളെ നമുക്ക് സന്തോഷം വന്നാലും ദുഖം വന്നാലും നമ്മൾ നൃത്തം കാണുന്നത് നല്ലതാണ് നൃത്തത്തിലൂടെ നമ്മൾ ചിലപ്പോൾ നമുക്ക് തന്നെ അത് കാണുമ്പോൾ നമുക്ക് നൃത്തം ചെയ്യാനായിട്ട് ചിലപ്പം തോന്നും എന്റെ കുഞ്ഞിനെ ഞാൻ നൃത്തം പഠിപ്പിക്കുന്നുണ്ട് മനസിനൊരു സന്തോഷം മാണ് നൃത്തം കാണുമ്പോഴത്തേക്കും എനിക്കും ചിലപ്പം അത് കാണുമ്പോൾ കളിക്കാനായിട്ട് ഒരു ആകർഷണമുണ്ടാകാറുണ്ട് ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ സ്വമേധയാ നമുക്ക് ഒന്ന് ഡാൻസ്സ് കളിച്ചാലോ എന്ന് ചില സമയത്ത് തോന്നാറുണ്ട് എനിക്ക് ഡാൻസ് ഇഷ്ടമാണ് ഞാൻ ഡാൻസ് പ്രോഗ്രാമൊക്കെ കാണാറുണ്ട് മനസിന് സന്തോഷവും സമാധാനവും തരുന്നതാണ് നൃത്തം